എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ നട്ടു വളർത്തി പരിപാലിച്ച് വരുന്ന ഒരു ചെറിയ പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിൽ പല തരത്തിലുള്ള പൂക്കളുണ്ട് പിന്നെ പൂക്കളെന്ന് പറഞ്ഞാല് ചെമ്പരത്തിയുണ്ട് പലതരത്തിലുള്ള ചെമ്പരത്തിയുണ്ട് പല കളറിലുള്ള ആ പിന്നെ അഞ്ച് ഇതളുള്ള കുറെ ഇതളുള്ള മൂന്ന് ഇതളുള്ള അങ്ങനെയുള്ള മഞ്ഞ പിങ്ക് ലൈറ്റ് പിങ്ക് അങ്ങനെ ചുവപ്പ് ഡാർക് ചുവപ്പ് ഡബിൾ കളർ രണ്ട് കളർ അതായത് പിങ്കും യെല്ലോ അങ്ങനെ പല കളറിലുള്ള ചെമ്പരത്തികൾ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് പലതരത്തിലുള്ള ചെമ്പരത്തികൾ അതുകൂടാതെ കുറ്റി മുല്ലയുണ്ട് കുറ്റിമുല്ലയുണ്ട് മുല്ലയിൽ രണ്ട് മൂന്ന് തരമുണ്ട് പിന്നെ സാദാ മുല്ല പിന്നെ കാക്കട എന്ന് പറയുന്ന കുറച്ച് വലിയ ഒരു മുല്ല പിന്നെ നമ്മള മൊട്ടു മുല്ലയില്ലേ ആ നല്ല മണമുള്ള അതുകൂടാതെ വേറെയൊരു മുല്ലയും കൂടിയുണ്ട് അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ എന്താണ് പറയേണ്ടത് ആ ജാജി ജാജി ആ അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് നാല് തരത്തിലുള്ള മുല്ലയുണ്ട് പിന്ന റോസ് ഉണ്ട് റോസ് ചെറിയ ബട്ടൻ റോസ് ഉണ്ട് പിന്നെ സാദാ നമ്മുടെ റോസ് ഉണ്ട് പിങ്ക് റോസ് പിങ്ക് പിന്നെ നമ്മുടെ റോസ് സാദാ കട്ടി റോസിലുള്ള റോസ് അങ്ങനെ അതുണ്ട് അങ്ങനെ കുറച്ച് പൂക്കളുണ്ട് നാല് മണി പൂവുണ്ട് അതുപോലെ പത്തരമണി പൂവുണ്ട് ജമന്തിയുണ്ട് ജമന്തി വെള്ളയും മഞ്ഞയുമുണ്ട് അങ്ങനെ കുറെ തരത്തിലുള്ള പൂക്കളുണ്ട് ഇതിനൊക്കെ ഞാൻ തന്നെയാണ് വെള്ളമൊഴിക്കലും പരിപാലിച്ചുവരുന്നതുമൊക്കെ ചില സമയങ്ങളിൽ എൻ്റെ ഭർത്താവ് സഹായിക്കാറുണ്ട് വെള്ളമൊഴിക്കാനൊക്കെ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അവരൊഴിക്കാറുണ്ട് അപ്പം ഇത് ഈ പൂന്തോട്ട പരിപാലനത്തിനായി ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ കൈക്കോട്ട് ബായിക്കോട്ട് പൂങ്കോട്ട് പിക്കാസ് പിന്ന മാച്ച് ചൂൽ യൂസ് ചെയ്യാറുണ്ട് മാച്ച് പിന്നെ ഓസ് വെള്ളം ഒഴിക്കാനായിട്ട് ഓസ് പിന്നെ വട്ടി വേസ്റ്റുകളും പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പ അതിലെ എല്ലാ അധികം വീണിട്ടുണ്ടെങ്കിൽ എടുത്തുകളയാൻ പുല്ലൊക്കെ പറിച്ച് യൂസ് ചെയ്യുക പറിച്ച് വട്ടിയിലിട്ട് കൊണ്ടുപോയി കളയാനൊക്കെ വട്ടിയും യൂസ് ചെയ്യാറുണ്ട് അപ്പം ഈ ഓസ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറുത് മെലിഞ്ഞ മെലിഞ്ഞ ഓസ് ആണ് യൂസ് ചെയ്യുന്നത് അത് പൈപ്പിൽ കണക്റ്റ് ചെയ്തിട്ട് കണക്റ്റർ യൂസ് ചെയ്ത് കണക്റ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കും പിന്നെ വേറെ ഒരു തടിച്ച ഓസ് ഉണ്ട് തടിച്ച ഓസ് നമ്മൾ തെങ്ങിൻ തോപ്പിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യുന്നത് നമ്മളെ വീട്ടിന് ചുറ്റുമായിട്ട് ഒരു നാൽപത് നാൽപത്തിയഞ്ച് തെങ്ങുകളുണ്ട് തേങ്ങ പിടിക്കുന്ന തെങ്ങുകളുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് തടിച്ച ഓസ് യൂസ് ചെയ്യും പിന്നെ ഈ കൈക്കോട്ട് പിക്കാസ് പൂങ്കോട്ട് ബായിക്കോട്ട് ബായിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മാന്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതായത് പൂച്ചെടികൾ നടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് പിക്കാസുകൊണ്ട് ആദ്യം ഇളക്കും പിന്നെ പിന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ ഇളക്കണമെങ്കിൽ ബായിക്കോട്ട് യൂസ് ചെയ്യും അതിൽ ചെടികൾ നട്ട് വെള്ളം ഒഴിച്ച് പിന്നെ നനച്ച് ഡെയിലി നനച്ച് കൊടുത്ത് വളർത്തുന്ന ഇതാണ് പിന്നെ അതിന് പൂവ് നല്ലവണ്ണം പൂവ് ഇടിക്കാൻ വേണ്ടിയിട്ട് വളങ്ങളൊക്കെ കിട്ടാറുണ്ട് നമ്മൾ വളം ഡിപ്പോയിൽ പോയാൽ പൂവിടിക്കാനുള്ള നന്നായിട്ട് പൂവിടിക്കാനുള്ള വളങ്ങൾ പിന്നെ തൈ നല്ല വൃത്തിക്ക് നല്ല പുഷ് പുഷ്ടിച്ച് വളരാനുള്ള വളങ്ങൾ പിന്നെ കുറച്ച് വീട്ടിൽ കോഴി ഉള്ളതുകൊണ്ട് കോഴിവളം അത് കുറച്ച് യൂസ് ചെയ്യാറുണ്ട് കോഴി വളം ഇടും പിന്നെ കുറച്ച് ചാണകപ്പൊടി വാങ്ങി അതും ഇടും പിന്നെ കുറച്ച് വളം ഡിപ്പോയിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വളം പാക്കറ്റ് വളം വാങ്ങിയും യൂസ് ചെയ്യാറുണ്ട് അതുണ്ട് പിന്നെ ഈ ഉപകരണങ്ങൾ വേറെ എന്തിനോക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് നമ്മൾ തെങ്ങിൻ തടം എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും പിക്കാസ് വേറെ കുഴികളുണ്ടാക്കാനോ അതുപോലെ തന്നെ വയൽ കൃഷിയിടങ്ങളിലും ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും മണ്ണിളക്കി കൊടുക്കാനൊക്കെ ഇപ്പം കെട്ടിട നിർമാണത്തിനായാലും കൈക്കോട്ടും പിക്കാസും യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ എന്തിനെങ്കിലും കുഴി കുത്താനെങ്കിൽ പിക്കാസ് വേണ്ടി വരും അതുപോലെ തെങ്ങിൻ തടമെടുത്ത് അതിലേക്ക് വീണ്ടും മണ്ണ് കോരിയിടാൻ ആണെങ്കിലും തടമെടുക്കാനാണെങ്കിലും നമുക്ക് പിക്കാസ് അല്ല കൈക്കോട്ട് ആവശ്യമാണ് പിന്നെ ഇങ്ങനെ ഉള്ള പിന്നെ ഓസ് ഓസ് വെള്ളം നനക്കാനായാലും ഇപ്പോൾ വീട് കെട്ടി കൺസ്ട്രക്ഷൻ തുടങ്ങി ഇപ്പോൾ മതിൽ പകുതി ആയാൽ കെട്ടിയാൽ അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസ് യൂസ് ചെയ്യും അതുപോലെ തന്നെ വട്ടി പൂഴി എടുക്കാനായാലും മണ്ണ് കോരി കൊണ്ട് കളയാനായാലും കല്ല് അങ്ങോ കല്ലും കഷ്ണങ്ങൾ ഒക്കെ മാറ്റിയിടാനായാലും നമ്മൾ വട്ടി പല ആവശ്യത്തിന് യൂസ് ചെയ്യും അതുപോലെ തന്നെ പലതരം വട്ടികളുണ്ട് തേങ്ങ കൊണ്ടുപോകാൻ വലിയ വലിയ ഹോൾസ് ഉള്ള വട്ടികളുണ്ട് അതുപോലെ തന്നെ റബ്ബർ വട്ടിയുണ്ട് പിന്നെ പ്ലാസ്റ്റിക് വട്ടിയുണ്ട് മറ്റേ നമ്മുടെ പണ്ടത്തെ വട്ടിയില്ലേ ആ ഒരു ചൂരൽ ആ എന്താണ് വട്ടി മെടയുന്ന ആ ഒരിത്കൊണ്ടുണ്ടാക്കുന്ന വട്ടി അതൊക്കെ ഇപ്പോൾ കാണാറില്ല ഇപ്പം ആ വട്ടി കിട്ടാണെങ്കിൽ ആ പ്രത്യേകം നമ്മളിപ്പോൾ ചോറ് ഒരുപാട് ചോറ് ഉണ്ടാക്കി വാർക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ വട്ടി വാങ്ങാറും യൂസ് ചെയ്യാറും ഇപ്പം അധികം യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് വട്ടികളാണ് പ്ലാസ്റ്റിക് വട്ടിയും റബ്ബർ വട്ടിയുമാണ് അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പൂന്തോട്ട പരിപാലനത്തിനല്ലാണ്ട് ഈ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ എന്ത് എന്ന് പറഞ്ഞാൽ വേറെ പലതരത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ വീട് ക്ലീൻ ആക്കാനായാലും നമ്മൾ മാച്ച് യൂസ് ചെയ്യും മുറ്റമടിക്കാൻ യൂസ് ചെയ്യും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളുടെ ഇടയിൽ പിന്നെ വൃത്തികേടൊക്കെ നീക്കാനും പിടിക്കാനും നമ്മൾ പിന്നെ മാച്ച് യൂസ് ചെയ്യും അതുപോലെ തന്നെ മുറ്റം അടിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി ഓസ് നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാൻ വേണ്ടി മുറ്റം പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മണ്ണ് ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ വെള്ളം ഫോഴ്സിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസ് യൂസ് ചെയ്യാറുണ്ട്